കേരളത്തില് ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയായ പാലക്കാട് കൃഷിയും അതു പോലെ തന്നെ കൃഷി അനുബന്ധ ജോലി ചെയ്യുന്നവരാണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത് പാലക്കാടിലങ്ങോളമിങ്ങോളം ഉള്ള എല്ലാ പ്രദേശങ്ങളിലും കൃഷി സംബന്ധമായിട്ട് ചെയ്യുന്ന ജോലികൾ ചെയ്യുന്ന ആളുകളാണ് വളരെയധികം ഉള്ളത് ഉദാഹരണമായിട്ട് കേരളത്തില് എറ്റവും കൂടുതല് അരി ഉൽപാദിപ്പിക്കുന്ന ജില്ല അല്ലെങ്കിൽ നെല്ല് ഉൽപാദിപ്പിക്കുന്ന ജില്ല എതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം പാലക്കാടാണ് അതു പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപാദിപ്പിക്കുന്ന ജില്ല എതെന്നു ചോദിച്ചാൽ അതിനുത്തരവും പാലക്കാട് തന്നെയാണ് അതുപോലെ തന്നെ കേരളത്തിൽ പരുത്തി ഉൽപാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അതും പാലക്കാട് തെന്നെയാണ് അങ്ങനെ പാലക്കാട് ഈ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു വരുന്ന ഒരു ജില്ലയാണ് പാലക്കാട് എങ്ങു നോക്കിയാലും മരത മനോഹരമായിട്ടുള്ള പച്ചക്കറി പാടങ്ങളും അതുപോലെ തന്നെ പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളും മാത്രമേ പാലക്കാട് കാണാൻ പറ്റു ജല ദൗര്ലഭ്യം ഉണ്ടെങ്കിൽ കൂടി ഉള്ള ജലം ഉപയോഗിച്ച് പാലക്കാട് ആധുനിക രീതിയിലുള്ള കൃഷി രീതിയാണ് അവലംബിച്ച് വരുന്നത് വിഷുവിൻറെ തുടക്കത്തിലാണ് പാലക്കാടിൽ കൃഷിക്ക് ആരംഭം കുറിക്കുക അതായത് വിഷിവിന് ശേഷം കൃഷിക്ക് ആരംഭം കുറിക്കും വിത്ത് നട്ട് ആരംഭം കുറിക്കുകയും ഓണത്തിന് ശേഷം അല്ലെങ്കിൽ ഓണത്തിന് മുമ്പാണ് വിളവെടുപ്പ് മഹോത്സവം അല്ലെങ്കിൽ വിളവ് എടുക്കുന്ന ഒരു പ്രക്രീയ കണ്ടു വരുന്നത് പാലക്കാട് ഈ കൃഷി കൂടുതാലായിട്ടും കാലാവസ്ഥയെ നോക്കിയിട്ടാണ് കൂടുതലായിട്ട് കൃഷി ചെയ്തു വരുന്നത് അതുകൊണ്ട് തന്നെ പാലക്കാടില് ഉള്ള കൃഷിക്ക് അല്ലെങ്കിൽ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ഉൽപന്നങ്ങൾക്ക് ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലും വളരെയധികം ആവിശ്യക്കാർ ഏറെ ഉണ്ട് അരി ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ജില്ല എന്നതു കൊണ്ടു തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള അരി കച്ചവടക്കാർ കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് കഴിക്കുന്നത് പാലക്കാടിനെയാണ്